ഇന്ത്യയിൽ പ്രധാനമായിട്ടും ലാൻഡ്സ്കേപ്പുകളങ്ങനെ പെട്ടെന്നു ചോദിച്ചാൽ ഓർമ്മയിൽ വരുന്നത് താജ് മഹൽ അതു പോലെ തന്നെ പിന്നെ കുറേ ബീച്ചുകൾ പിന്നെ കേരളത്തിലാണെങ്കിൽ

ഗോവയുണ്ട് ഗോവ ഗോവയിലേക്ക് ഒത്തിരി ആളുകൾ പോകാറുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ സൂ പിന്നെ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ കേരളത്തിലാണെങ്കിൽ മൂന്നാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പിന്നെ എന്താണ് വേളാങ്കണ്ണി വേളാങ്കണ്ണിപ്പള്ളി അതൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് പിന്നെ ആളുകൾ സാധാരണ പോകാറ്